ഹലോ ഹലോ എനിക്കില്ലേ ഇരുന്നൂറ് രൂപക്ക് പെട്രോളടിക്കാൻ വേണ്ടിയാണ് അതെത്ര ദൂരം പോവാൻ പറ്റും ഇരുന്നൂറ് രൂപക്കടിച്ചാൽ എനിക്കിപ്പം ആദ്യവായതോണ്ടറിയത്തില്ല അതെത്ര കിലോമീറ്ററ് കിട്ടും

ആ ആ വണ്ടീടനുസരിച്ച് ആ ആ ആ ആ എങ്കിൽ പിന്നടിക്കാം ന്താപ്പെ ക്യാഷായിട്ടാണ് ആ ആ ആ ആ എന്നിട്ട് ഇല്ലേ എനിക്കിച്ചിരി വഴിയും കൂടൊന്ന് പറഞ്ഞേ എനിക്കിവിടുന്നങ്ങ് പുനലൂർ വരെ പോവാനാണ് പുനലൂർ വരെ പോവാൻ നമ്മളിപ്പം ഇവിടെ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടുന്ന് ഇതിലെ പോണെങ്ങോട്ട് ഇവിടെന്ന് ഒത്തിരി ഒത്തിരി വഴികളൊണ്ടല്ലോ ഇപ്പോൾ ഏതിലേ പോയാലാ പുനലൂരും പോകണം പിന്നെ ട്രാഫിക്കിൻറ്റിതിൽ നിന്നും രക്ഷപ്പെടണം പെട്ടന്നൊരാവശ്യം ഒരു മീറ്റിംഗിന് വേണ്ടി പോവാനായിരുന്നു ആ ആ ആ ആ

പള്ളിയാ അതേത് പള്ളിയാ മാർത്തോമ പള്ളിയാണോ യാക്കോബ പള്ളിയാണോ ഏത് പള്ളിയാണ് മലങ്കര പള്ളി ആ ആ ആ ആ ആ

നമ്മളെന്താണ് ചോദിക്കേണ്ടത് പുനലൂരോട്ട് പോകണ എളുപ്പമുള്ള വഴിയാണോ

ആ ആ ആ

ഓ ഓ എല്ലാവരും തിരക്കായിരിക്കുവല്ലോ ആ

ആ ചോദിക്ക് ഓ അവർക്കറിയാവായിരിക്കല്ലേ വഴി നിൽക്കുന്നവരോട് ചോദിച്ചാൽ ചോദിച്ചറിയാവായിരിക്കല്ലേ ആ ആ ആ ആ ആ ആ

ഓ അന്നേരം ട്രാഫിക് പ്രശ്നം കാണുവല്ലോ അല്ലേ പിന്നെ പുനലൂർ ചെന്നാലും സാധനം മേടിക്കാൻ പറ്റത്തില്ലേ ആ ആ ഓക്കേ ഓക്കേ ആ ആ ആ ആ ആ ആ എങ്കിൽ പിന്നെ ഞാൻ പിന്നെനിക്ക് ആ പോകുന്ന വഴിക്ക് ചോദിച്ചോളാം ഓക്കേ താങ്ക് യൂ ഇത്രയും പറഞ്ഞ് തന്നതിന് കേട്ടോ താങ്ക്സ് ഓക്കേ ഓക്കേ ഓക്കേ